സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുമ്പം ഇക്വാലിറ്റി ഇല്ല എന്ന് വെച്ചാൽ പുരുഷന്മാർ ചെയ്യുന്ന ഒരു ജോലികളും സ്ത്രീകൾ ചെയ്യേണ്ട എന്നല്ല എന്നാലും അവർക്ക് ഒരു പരിമിതികൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിൽ മാത്രം അല്ല വേറെ രാജ്യങ്ങളിൽ നോക്കിയാലും സ്ത്രീകൾക്ക് ഒരുപാട് ജോലികളൊന്നും അവർ കൊടുക്കുന്നില്ല എപ്പോഴും അവർ കൊടുക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് അത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപും നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്താണ് സ്ത്രീകൾക്ക് സമത്വം ഇല്ലായിരുന്നു എന്നാണ് എൻറെ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു എന്നാലും മുസ്ലിംസ് തന്നെ മുഖം മറച്ചേ നിൽക്കാൻ പാടുള്ളൂ അത് മുഖത്ത് നിന്ന് ഇത് മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയി മാറും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒരു അടിമത്വത്തിൻ്റെ കീഴിൽ നിൽക്കണം എന്നുള്ളൊരു വിചാരം ആണെപ്പോഴും സ്ത്രീകൾ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളി അവരെ പതിനെട്ട് വയസ്സ് ആകുമ്പം കെട്ടിച്ച് വിടുക അത് തന്നെ ഒരു പ്രധാന ഘടകം ആണത് അവർക്കൊരു ജോലി എന്നൊരു സംഭവം അവർക്ക് കൊടുക്കുന്നില്ല ആ വീട്ടിൽ അടിമകളെ പോലെ ഇടുക എന്നൊരു ഒരു സമൂഹം ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവർ ഇപ്പം ജോലിയിൽ ഒരുപക്ഷേ ഇപ്പം ജോലി കിട്ടിയെന്നൊരു വിചാരം ഉണ്ട് അതായത് ജോലി ഒരു ഒരു സ്ത്രീക്ക് ജോലി കിട്ടി ആ ഒരു മേഖലയിൽ പോലും അവൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പം ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കീഴിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു അവർ പറയുന്നത് എന്തും അനുസരിക്കേണ്ട ഒരു അവസ്ഥയും സ്ത്രീകൾക്ക് വരാറുണ്ട് പക്ഷേ പുരുഷന്മാരിൽ ആണെങ്കിൽ എന്താണ് അവർക്ക് അങ്ങനെ ഒരു ഒരു ബോർഡർ ഇല്ല അവർക്ക് എന്തും ചെയ്യാം അവർക്ക് എല്ലാ മേഖലകളിലും അവർക്ക് പോകാം അതുപോലെ തന്നെ ജോലിയും വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ അത്ര വിദ്യാഭ്യാസം ഒന്നും കൊടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവർ ഒരു ജോലിയിൽ എത്തണം എന്നൊരു നില ഇപ്പം വന്നിട്ടുണ്ട് എന്നാലും നോക്കുമ്പം എന്താണ് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികൾ ഇവിടുന്ന് പോവുവാണ് വേറെ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാണ് കാരണം എന്താണ് ഇന്ത്യയിൽ ജോലിയില്ല അവർക്ക് അവസരങ്ങൾ കുറയുവാണ് വിദ്യഭ്യാസം ഉണ്ടെങ്കിലും അവർ ഒരിക്കൽ അവർക്ക് ഒരിക്കലും ഇവർ ഒരു അവസരം ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നില്ല ആ ഒരു അവരുടെ വിദ്യഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു മൂല്യം അതായത് പൈ പണം പൈസയാണ് എല്ലാവർക്കും ആവശ്യം ആ ഒരു മൂല്യം കിട്ടുന്നില്ല അവർ ഇപ്പം അവർ പഠിച്ച ഇപ്പം അവരവർ പഠിച്ച വിദ്യ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രയോഗിക്കാൻ ഒരു അവസരം അവർ കൊടുക്കുന്നില്ല ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്നില്ല ആദ്യം തൊഴിലില്ലായ്മ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു സ്ത്രീക്ക് ജോലി കഴിഞ്ഞിട്ട് വരുവാണെന്ന് വെച്ചോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തിനീ പറയുന്നു കേരളത്തിൽ തന്നെ ഒരു പെ ഒരു പെൺകുട്ടി ജോലി കഴിഞ്ഞ് വരുവാണ് ആ സമൂഹം കാണുന്നത് എങ്ങനെയാണ് അവൾ വേറെ എന്തോ ജോലിക്ക് പോയിട്ട് വരുന്നു ആ ഒരു രീതിയിലേ അവർ കാണാറുള്ളൂ ആ ഒരു ഇതി തന്നെ അവർ നോക്കാറുള്ളൂ അവർക്ക് സ്വൽപ്പം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലും ഒരുപാട് പേർ ചോദിക്കും ഒരുപാട് ശല്യ ശല്യപ്പെടുത്തും വേറെ ഒരു രീതിയിലായിരിക്കും അവളെ കാണുന്നത് അവൾ ഈ രാത്രി ജോ ഒരു ആറ് മണി ഏഴ് മണി കഴിഞ്ഞാൽ പോലും ആൾ ചോദിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ഇപ്പം ഞാനിപ്പം സമൂഹത്തിലേക്കിപ്പം ഞാൻ ഞാനിപ്പം പഠിച്ച് പഠിച്ച് കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരാവവശ്യത്തിനായിട്ട് വേറെ നാ നാട്ടിലേക്ക് പോയി പോയി തിരിച്ച് വന്നു അപ്പോൾ അവർ ചോദിക്കുന്നതെന്താണ് നീ ഒറ്റയ്ക്കാണോ പോയതെന്ന് ചോദിക്കും സ്ത്രീക്ക് എന്താണ് ഒറ്റയ്ക്ക് പോയിക്കൂടേ അവർക്ക് ഈ നാ ഈ ചോദിക്കുന്നവരുടെ ഉള്ളിലൊരു പ്രയാസം വിഷമം ഉണ്ട് വിഷമം അല്ല അവർക്ക് കാ ടെൻഷൻ പോലെ കാണുമായിരിക്കും നമ്മുടെ എന്താണ് അവൾ ഒറ്റയ്ക്ക് വേറെ വേറെയൊരു സ്ഥലത്തേക്ക് പോയിട്ട് വരുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ വേറെ നാട്ടിലാണ് പോകുന്നത് ആ ഒരു മൈൻഡിൽ ആളുകൾക്ക് അങ്ങനെയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സമൂഹം ഇപ് പണ് ഇപ്പോഴത്തെ കാലത്തും പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകൾക്ക് കുറച്ച് ഇളവൊക്കെ ലഭിക്കുന്നുണ്ട് നിത്യേന നേരിടുന്ന വെല്ലുവിളി ഇതൊക്കെ തന്നെയാണ് അവർക്ക് ജോലിയില്ല സുരക്ഷിതത്വം ഇല്ല സമൂഹം മൊത്തമില്ല ഇക്വാലിറ്റി ഇല്ല ഇതൊക്കെത്തന്നെയാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ജോലികളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാലും എന്നാൽ ഇപ്പോൾ ഒരു വിദ് വിദ്യാർത്ഥിനി പാർട്ട് ടൈം ജോബ് ആയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി അവൾക്ക് ഷ് നൈറ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് കൊടുക്കുന്നു നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കത്തില്ല അപ്പം അതിൻ്റെ പേര് പറയുന്നില്ല നൈറ്റ് ഷിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല കാരണം ആൺകുട്ടികൾക്ക് മാത്രമേ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്താണ് പെൺകുട്ടികൾക്ക് ചെയ്താൽ അവൾക്ക് എന്താണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു അവകാശം ഇല്ലേ അവൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ അവകാശം ഇല്ലേ അതൊക്കെ ഒരു ഇപ്പോഴും മാറേണ്ട ഒരു കാര്യം തന്നെയാണ് സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇല്ലായ്മ ആയിരിക്കാം അങ്ങനെയൊരു വ്യവസ്ഥ അവർ വെച്ചേക്കുന്നത് വിദ്യാഭ്യാസത്തിലിപ്പം വിദ്യാഭ്യാസം കൂടുതലായാൽ തന്നെ ഏത് ഏതൊരു ക കമ്പനിയിൽ നോക്കിയാൽ തന്നെ സ്ത്രീകൾ അല്ല തലപ്പത്ത് ഇരിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകൾക്കും അവസരം കൊടുക്കണം പക്ഷേ ഒരിക്കലും അവസരം അവർ കൊടുക്കുന്നില്ല ആ ഒരു അവസരം കൊടുത്താലേ സ്ത്രീകൾക്ക് മുന്നോട്ട് വന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ഉന്നമനത്തിനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റത്തുളളൂ പക്ഷേ അവിടെ ഒന്നും കൊടുക്കുന്നില്ല അത് വേറെ സത്യം പിന്നെ എന്താണ് വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടറിന് പഠിക്കുന്നു ഡോക്റ്ററിന് പഠിക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു താഴ്ന്നൊരു വിഭാഗത്തിൽ പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നാൽ എന്നാൽ സമ്പന്നരായ ഒരുപാട് പേർക്ക് പഠിക്കാം ബോയ്സാണെങ്കിൽ അവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രേഡ് ഉണ്ടാകും ഇപ്പം തന്നെ പോളിടെക്നിക്ക് അതുപോലെയുള്ള വിദ്യാഭ്യാസം ഉണ്ട് പണ്ടാണ് പറയുന്നത് പോളിടെക്നിക്കിൽ സ്ത്രീകൾക്ക് പറ്റത്തില്ല മെഷീൻ മെഷീൻ പോലെയുള്ള മെക്കാ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ സ്ത്രീകൾക്കൊരിക്കലും പറ്റത്തില്ല അത് പുരുഷന്മാർക്കേ പറ്റത്തുളളൂ എന്നൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്ക വന്നിട്ടുണ്ട് പെൺകുട്ടികളും ഇപ്പം വണ്ടി പഠിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ബസ്സിൽ ബസ് കണ്ടക്റ്റർ ആയിട്ടും സ്ത്രീകൾ പോവുന്നുണ്ട് ഡ്രൈ ഡ്രൈവർ ആയിട്ടും സ്ത്രീകൾ പോവുന്നുണ്ട് അങ്ങനെയൊക്കെ ചെറുങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ കൊണ്ട് വരുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് മേഖലകളും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അന്നേരം ഒരുപോലെ ഒരവസരം ഒരിക്കലും സ്ത്രീക്ക് ലഭിക്കുന്നില്ല ഒരിടത്തും ലഭിക്കുന്നില്ല കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ലഭിക്കുന്നില്ല എന്നാൽ മറ്റ് മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇന്ത്യയെ അപേക്ഷിച്ച് മറ്റ് കൺട്രി രാജ്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാൽ ഇല്ലാത്ത രാജ്യ രാജ്യങ്ങളും ഉണ്ട് സ്ത്രീകൾ കൊടുക്കാത്ത വീട്ടിൽ വീട്ടിലെ ഭർത്താക്ക് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ രീതിയിലേക്ക് ആ ഒരു സമ്പ്രദായം ഉള്ള രാജ്യങ്ങളും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിൽ പിന്നെ ഇപ്പം അങ്ങനെ ഇല്ല കല്യാണം വിവാഹം കഴിയണം അങ്ങനെ ഉള്ളൊരു ചിന്തയില്ല അവർക്ക് ജോലി ചെയ്യാം ഇപ്പം പഠിക്കാം എത്ര വേണമെങ്കിലും പഠിക്കാം പേരൻറ്സ് സപ്പോർട്ട് ആണ് അപ്പം ആ ഒരു രീതിയിൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുവാണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി എന്നൊരു കാര്യം നിലവിൽ വരും സമൂഹത്തിൽ ആരെയും ഭയക്കാതെ ഇറങ്ങി നടക്കാം ജോലി ചെയ്യാം അതുകൊണ്ട് സ്വ സ്വന്തം കാലിൽ നിൽക്കാം സുരക്ഷിതത്വം ഉണ്ട് തുല്യ തുല്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും ഇപ്പോഴും ആ ഒരേ രീതിയിൽ ഇപ്പം പോകുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് എൻറെ അഭിപ്രായം അതുപോലെ തന്നെ സുരക്ഷിതത്വം ലഭിക്കും ചില സമൂഹത്തിൽ മറ്റേ രീതിയിൽ അവർ കാണത്തില്ല നമ്മൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ട് വരാനായിട്ട് സാധിക്കുക ഒക്കെ ചെയ്യും വിദ്യാഭ്യാസം കൂടി ഒരുപാട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യും ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയർന്ന പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഇപ്പം തന്നെ പ്ലസ് ടു പത്ത് ഇങ്ങനെ ഇപ്പം പത്രം എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചാൽ പെൺകുട്ടികളാണ് കൂടുതലായിട്ടും എഡ്യൂക്കേഷനിൽ മുൻപിൽ നിൽക്കുന്നത് ആൺകുട്ടികൾ ഇല്ലെന്നല്ല പെൺകുട്ടികളാണ് കൂടുതൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാറ് രാപ്പകലില്ലാതെ പഠിക്കുക എന്നിട്ട് ജോലി എന്നിട്ട് അവർക്ക് സ്കൂളിൽ മാർക്ക് മേടിക്കുക എന്നാൽ ഫുൾ മാർക്ക് മേടിച്ചാലോ അടുത്ത ഒരു മേഖലയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ജോലി ജോലി എന്നൊരു കോൺസെപ്റ്റ് ഒരു ച് ഒരു ഇതില്ലാത്തെ കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കു പെൺകുട്ടികൾ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് സ്ത്രീ പുരുഷന്മാരുടെ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് സുരക്ഷിതത്വം ഒട്ടും ഇല്ലാത്തത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുക അവർക്കൊരു വിൽ പവർ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു വലിയ ഒരു എഫേർട്ട് തന്നെയാണ് അത് ഇപ്പം എല്ലാ സ്ത്രീകളിലും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ട് ഇവർക്ക് കൂടുതൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മനസ്സാന്നിദ്ധ്യം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പം തുല്യ അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് ഇപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ടെന്നാണ് എൻറെ ഒരു എൻറെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം ഒരുപാട് ഒരുപാടില്ല എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്പർച്ചുണിറ്റിസ് ഒക്കെ ഒരുപാടില്ല എന്നാലും കുറച്ച് കുറച്ച് ഓപ്പർച്ചുണിറ്റിസ് ഒക്കെ അവർക്ക് അവസരങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അവർ അത് നല്ലതുപോലെ തന്നെ എഫേർട്ട് എടുത്ത് തന്നെ അവർ ചാ നടത്തുകയും ചെയ്യുന്നു ഒരിക്കലും തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ സ്ത്രീകൾ നടത്തുന്നുണ്ട് സുരക്ഷിതമായിട്ട് തന്നെ നടത്തുന്നുണ്ട് പോലീസ് മേഖലയിലുള്ള ഇപ്പം ഈവൻ പോലീസ് മേഖലയിലായാൽ പൊലും സ്ത്രീകൾക്ക് ഉണ്ട് അവർക്ക് ഒരുപാട് സുരക്ഷിതത്വമായ നിയമങ്ങളുണ്ട് അത് മിസ്സ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ട് സുരക്ഷ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ എന്നുവെച്ചാൽ ഒരുപാട് നിയ നിയമങ്ങൾ ഉണ്ട് അതൊക്കെ ഉള്ളിടത്തോളം കാലം സ്ത്രീക്ക് സുരക്ഷിതത്വം ആയിരിക്കും വിദ്യ വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നൊരു രീതി തന്നെ നമുക്ക് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇപ്പം ഇല്ല എന്നാൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പം അത്രയും സുരക്ഷിതത്വം ഇല്ല എന്ന് മരണ നിരക്ക് സംഭവിക്കുന്നുണ്ടങ്കിലും അതിന് വേണ്ടുന്ന നിയ നിയമങ്ങൾ നടപടികളും എല്ലാം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പേടി പേടിച്ച് മ മർഡറിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം പുരുഷന്മാരുടെ ഇടയിൽ ഇല്ലാതാവുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് സുരക്ഷിതമാണെന്നാണ് എൻറെ ഒരു അഭിപ്രായം